ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോള് അടുത്ത് സറാറ എന്നുള്ള മോഡലില് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല കളറൊക്കെയായിരുന്നു മീൻസ് മുന്തിരി കളറാണ് അതിൻ്റെ കളർ വരുന്നത് അതുപോലെതന്നെ അതിട്ടിട്ട് എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് കാരണം നല്ല ഷേയ്പ്പിലും നല്ല ഒരു രീതിയിലും അത് നില്ക്കുന്നുണ്ടായിരുന്നു അപ്പോഴെനിക്ക് പേഴ്സണലി ആ ഡ്രസ്സ് നല്ലവണ്ണം പറ്റിയിട്ടുണ്ടായിരുന്നു ഷോളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലവണ്ണം തലയില് നില്ക്കുന്ന ടൈപ്പ് ഷോളൊക്കെ ആയിരുന്നു മീൻസ് അതിൻ്റെ വർക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കില് കറക്റ്റ് നമ്മളുടെ സൂപ്പറായിട്ട് മീൻസ് നമ്മളെ ഈ കല്യാണത്തിനും അതുപോലന്നെ വലിയ വലിയ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഓഫ് വർക്ക് തന്നെയായിരുന്നു അതില് കൂടുതലായിട്ട് ഉണ്ടായിരുന്നെ അപ്പോള് എനിക്ക് പേഴ്സണലി എൻ്റെ ആ ഒരു ഡ്രസ്സ് എന്നു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മുന്തിരി കളറും കൂടി ആയതുകൊണ്ട് നല്ലവണ്ണം നമ്മുടെ ആ ഒരു പേഴ്സനെ എടുത്തെടത്ത് കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സായിരുന്നു അപ്പോള് പേഴ്സണലി അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് എല്ലാവരും പറയുകയും ചെയ്തു നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് എന്ന് ഷോളൊക്കേ ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആ ഒരു ഇതിലെന്നെ നല്ല രീതിയിൽ തന്നെ എനിക്ക് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോള് പേഴ്സണലി ആ ഒരു ഡ്രസ്സ് എനിക്കത്രയും ഫേവറേറ്റ് ആണ്